സാധാരണ ഗതാഗത മാർഗ്ഗങ്ങൾ റ്റു വീലറ് ഫോർ വീലർറ് പിന്നെ ബസ്സ് ട്രെയിൻ ഫ്ലൈറ്റ് എന്നിവയൊക്കെയാണ് അതിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത് ബസ്സ് ട്രെയിന് പോലുള്ള സാഹചര്യത്തിലാണ് ബസ്സ് ട്രെയിന് പോലുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴാണ് ബസ്സിൽ പൊതുവേ ആൾക്കാർ ഭയങ്കര മോശമായ രീതികളിലാണ് യാത്ര ചെയ്യുന്നത് ബസ്സിൽ അധികം ആൾക്കാരെ കയറ്റുക പിന്നെ ഓവർലോഡ് ആക്കുക അതൊക്കെയാണ് അതുപോലെതന്നെ ട്രെയിനിലും ലോക്കൽ കമ്പാർട്ട്മെൻ്റിൽ വളരെ അധികം ആൾക്കാർ ഓവർലോഡായിട്ട് കയറുന്നുണ്ട് അതൊക്കെ ഭയങ്കര എന്താ പറയുക ഒരുമാതിരി വെല്ലുവിളി നേരിടുന്ന അപകടങ്ങൾ കൂടാൻ ഒരുപാട് സാധ്യത ഉണ്ട് ആ ഒരു അവസ്ഥയാണ് പിന്നെ ഫ്ലൈറ്റ് ഓക്കെയാണ് വിമാനയാത്ര നല്ലതാണ് പിന്നെ റ്റു വീലർറ് ഫോർ ഫോർ വീലറൊക്കെ ഉപയോഗിക്കുമ്പോൾ എല്ലാവരും റ്റു വീലറ്റ് ഉപയോഗിക്കുമ്പോൾ ഹെൽമറ്റ് വെക്കുന്നത് നിർബന്ധമാക്കണം കാരണം അപകടങ്ങളും കാര്യങ്ങളൊക്കെ വളരെ അധികം കൂടുതലാണ് ഇന്ത്യയിലെ ഗതാഗത മാർഗ്ഗം എന്നു പറയുമ്പോൾ റോഡ് പിന്നെ വളരെ മോശപ്പെട്ട രീതിയിലാണ് റോഡുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് റോഡുകളൊക്കെ ഭയങ്കര അപകടങ്ങൾ നിറഞ്ഞതാണ്